ഞാൻ കൂടുതലും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഫോൺ നോക്കിയിട്ടാണ് കുക്കിംഗ് ചെയ്യാറ് യൂട്യുബിലും കാര്യങ്ങളിലും ഇപ്പം കൂടുതലായിട്ടും ഒരുപാട് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും അതായത് സിമ്പിൾ ആയിട്ടുള്ളത് ബാച്ചിലേഴ്സിന് പറ്റിയിട്ടുള്ളത് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കുക്കിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഉണ്ടാവും അപ്പം ആ യൂട്യൂബ് നോക്കിയിട്ടാണ് കൂടുതലും ചെയ്യാറ് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു തരാറുണ്ട് എൻ്റമ്മ അത്യാവശ്യം നല്ലോണം പാചകം ചെയ്യുന്ന ഒരാളാണ് അപ്പം അമ്മ പറഞ്ഞു തരും അപ്പം അമ്മ ചെയ്യുന്നതിന് അനുസരിച്ചും ചെയ്യാറുണ്ട് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതാവാറും ഉണ്ട് അമ്മ ചെയ്യുന്നതൊക്കെ എന്ന് വച്ചാൽ ഞാൻ അങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്യാറ് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ അടുത്താണ് കൂടുതലായിട്ടും ആദ്യമൊക്കെ പഠിച്ചത് പിന്നെ ഇപ്പോൾ ആണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് അതായത് ചെറിയ ചെറിയ ടിപ്പുകൾ കാര്യങ്ങൾ അതായത് പാചകത്തിന് ഉപയോഗിക്കുന്ന ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ പഠിക്കുന്നത് ഞാൻ കൂടുതൽ യൂട്യൂബ് നോക്കിയിട്ടാണ്